അതെ അതെ ആരായിരുന്നു ആ ഓക്കെ പറഞ്ഞോളൂ ആ

പഠിത്തം കുഴപ്പമില്ല മാത്സിനും ഹിന്ദിക്ക് ഇത്തിരി പുറകോട്ടാണ് അതിന് മാത്രമേ ഉള്ളൂ ഇത്തിരി മാർക്ക് പുറകോട്ട് ഉള്ളൂ ബാക്കി എല്ലാത്തിനും നല്ല ഒരു മാർക്ക് ഉണ്ട് കുഴപ്പമില്ല

ആ മാത്സിനിപ്പം ഇപ്പം കൊച്ച് ട്യൂഷന് പോവുന്നുണ്ടായിരുന്നോ ആണല്ലേ പഠിക്കുന്നത് ട്യൂഷനൊക്കെ പോവുക പിന്നെ എന്താണ് ഗൈഡ് ഒക്കെ യൂസ് ചെയ്യുക നേരത്തെ എക്സാമിന് വന്നിട്ടുള്ള മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ ചെയ്യുക ഹിന്ദി ആണെങ്കിൽ വായിക്കുക അത്രയേ ചെയ്യാനുള്ളൂ പിന്നെ മടി പിടിച്ചിട്ട് കാര്യം ഇല്ലല്ലോ നമുക്ക് ഇതിപ്പോൾ അതും കൂടെ അത് രണ്ടും കൂടെ ഒന്ന് ഓക്കെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് ക്ലാസ്സിലെ ഫസ്റ്റ് ഉള്ള കൊച്ചാണ് അത് ആ ഹിന്ദി എന്നും എന്നും വായിപ്പിക്കുക എന്നും ബുക്ക് വായിപ്പിക്കുക ടെക്സ്റ്റ് അക്ഷരങ്ങളൊക്കെ പഠിപ്പിക്കുക തറോ ആയിട്ട് പിന്നെ ആ ആ അതെ അതെ അതെ ആ ആ അത് എനിക്കും മനസ്സിലാവുന്നുണ്ട് പക്ഷേ ആ അതിന് അവൾ തന്നെ വിചാരിക്കണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇവിടുന്ന് പഠിപ്പിക്കാവുന്ന അത്ര നോട്ടും ക്വസ്റ്റ്യൻ പേപ്പർ എല്ലാം കൊടുക്കുന്നുണ്ട് ക്വസ്റ്റ്യൻ പേപ്പർ എല്ലാം കൊടുക്കുന്ന എല്ലാം ഒന്നുകൂടെ ചെയ്തുനോക്കാൻ വേണ്ടി പറയണം അതേയുള്ളൂ മാത്സിന് ചെയ്യാനുള്ളൂ ആ ഒരെണ്ണം എന്തെങ്കിലും മിസ്റ്റേക്ക് വന്ന് കളയും ആ ആ ആ ഞാൻ ശ്രദ്ധിക്കുന്നൊണ്ട് ശ്രദ്ധിച്ചോളാം ഓക്കെ ഓക്കെ ആ ഓക്കെ ശെരി